ഹലോ ആഹ് ഹലോ സർ ചോദിച്ചോളൂ എന്തായിരുന്നു സർ ആവശ്യം ആഹ് ഓക്കെ എന്തായിരുന്നു ആവശ്യം സർ ഉദ്ദേശിക്കുന്ന റെന്റ് എത്രയാണ് വീടായിരിക്കും ആഹ് ഓക്കെ ഓക്കെ ഒരാൾക്ക് താമസിക്കാൻ ഉള്ള രണ്ട് ബെഡ് റൂം അറ്റാച്ചഡ് ബാത് റൂം അങ്ങനെ സൗകര്യങ്ങള് വേണം ഓക്കെ മെയിൻ റോഡിൽ വേണോ അതോ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായാൽ കുഴപ്പം ഉണ്ടോ പെയിൻ ഗസ്റ്റ് ആയി താമസിക്കാൻ സാറിനു താൽപര്യമുണ്ടോ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ ആണോ അതോ നിങ്ങൾ ഓക്കെ ആണ് ഓക്കെ രണ്ട് നില വീട് പറ്റുമോ സാറേ ആഹ് ഓക്കെ സർ ഓക്കെ വേറെ എന്തെങ്കിലും സറിനു എക്സ്ട്രാ സൗകര്യങ്ങളും കാര്യങ്ങളും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു നമുക്കൊരു വീടിപ്പോൾ ആൾറെഡി സെറ്റ് ആയി വെച്ചിട്ടുണ്ട് സാറിനു നാളെ സൗകര്യം കിട്ടുവാണെങ്കിൽ ഒന്നു വന്ന് നോക്കിയാൽ നന്നായിരുന്നു ഓക്കെ സർ ഓക്കെ ഓക്കെ താങ്ക് യൂ